അ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലേ കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മെനു ഐറ്റംസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ഓ ശരി ശരി ശരി

ഈ ഞണ്ട് ഞണ്ട് ഞണ്ട് കൊഞ്ച് താറാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിപ്പോൾ നമുക്ക് നമ്മൾ മെനു തന്നാൽ മതിയെന്ന് അല്ലേ ഓരോ ദിവസത്തെ എന്താണ് വേണ്ടതെന്നുള്ളത് മെനു തന്നാൽ മതിയെന്നാണോ

ഓ ശരി ശരി ആയിക്കോട്ടെ താങ്ക് യു